ഞാൻ ചന്ദ്രമതി ആയുറിൻ്റെ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ ബുക്കാണ് ഓർഡറ് ചെയ്തത് അതും ഗൂഗിൾലാണ് ഓർഡറ് ചെയ്തത് അപ്പോൾ അത് ഓർഡറ് ചെയ്ത് വരുകാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതിൻ്റെ പാക്കിങ് അതിൻ്റെ എല്ലാം ഭയങ്കര വളരെ വൃത്തിയായിട്ടുള്ള പാക്കിങ്ങൊക്കെ ആയിരുന്നു അവരുടെ ആ ബുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു അത് ആ പുസ്തകം വായിക്കണമെന്നുള്ളത് എൻ്റെ കുറെ നാളത്തെ ഒരാഗ്രഹമായിരുന്നു ആ പുസ്തകം വളരെ എന്താ ഗാഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിനെ പറ്റി മനുഷ്യൻ്റെ ശരീരത്തെ പറ്റി മനുഷ്യൻ്റെ ജനന മരണത്തെ പറ്റി ഇത്രയും ഗാഢമായി പറയുന്ന വേറൊരു പുസ്തകം ഞാനിതുവരെ വായിച്ചിട്ടില്ല അത്രക്ക് മനോഹരമായ എഴുത്തും പിന്നെ രചനാ ശൈലിയും ചന്ദ്രമതി ആയൂരിൻ്റെ ഒരു ഒരു എന്താ പറയുക ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം തന്നെയാണെന്ന് പറയാം പിന്നെ ഞാൻ ആദ്യത്തെ ആ മാസം തുടക്കത്തിൽ ഓർഡറ് ചെയ്തിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കാ ഓർഡറ് കിട്ടീന്നൊള്ളതാണ് പറയാൻ പറ്റിയ വച്ചുള്ള ആദ്യത്തെ കാര്യം ആ ഓർഡറ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്കത് ലഭ്യമായി എന്നുള്ളതാണ് പിന്നെ ആ ബുക്ക് അതിൻ്റെ ശരിക്കുമുള്ള വിലേനെക്കാളും കുറച്ച് വില കുറച്ചാണ് ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് തന്നെ പൈസ ലാഭിക്കാനും എനിക്ക് സാധിച്ചു അതാണ് എനിക്ക് ഉണ്ടായ രണ്ടാമത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ന്ന് പറഞ്ഞാല് പിന്നെ ആ ബുക്ക് ഞാന് വായിച്ചു ആ ബുക്കില് ഒരു കേടു പോലും ഉണ്ടായിരുന്നില്ല ആ പാക്ക് ചെയ്തതിൻ്റെ ഒരു ചുളുക്കോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആ ബുക്ക് നല്ല വൃത്തിയുള്ളതായിരുന്നു ആ ബുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലകൽപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ഈ ചന്ദ്രമതി ആയൂരിൻ്റെ മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ ഈ ബുക്ക് ഞാനിത് ആ പാക്കേജിൽ തന്നെ എനിക്ക് ഒരു സന്തോഷമുണ്ടായിരുന്നു അത് തുറന്ന് നോക്കിയപ്പോളതില് ഒരു ചുളുക്ക് പോലും ഇല്ലാതെ അത്രയും വൃത്തിയായിട്ടാണത് പാക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് വളരെ സന്തോഷമായി കാരണം ഇത്രയും തിരക്കുള്ള ഈ ജീവിതത്തില് മനുഷ്യൻ്റെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നമ്മൾടെ എന്താ പറയുക സമ്മർദ്ദങ്ങളും എല്ലാം മാറുന്നത് എനിക്ക് പുസ്തകം വായിക്കുന്നതിലൂടെയാണ് ചന്ദ്രമതി ആയൂരിൻ്റെ മൃതസഞ്ജീവനി എന്ന ബുക്ക് പുസ്തകം ഞാൻ കുറെ സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും അത് ഇവിടെയൊന്നും കിട്ടിയില്ല അവസാനം ഇങ്ങനെ കിട്ടിയ ആ ഒരു പുസ്തകം ഇത്രയും വൃത്തിയോടെ ഇത്രയും ഭംഗിയോടെ അവര് അതെനിക്ക് അയച്ച് തന്നു എൻ്റെ കൂടെ സമ്മർദ്ദങ്ങളാണ് അതിൻ്റെയൊപ്പം വന്നത് ഞാൻ മനസികപരമായി ഭയങ്കരമായിട്ടുള്ള ആശ്വാസത്തിലാണ് ഉള്ളത്